വയനാട് ജില്ലയിലെ ലഭ്യമായിട്ടുള്ള പ്രധാന ആരോഗ്യേ പരിപാലനങ്ങൾ പരിപാലന സൗകര്യങ്ങൾ സേവനങ്ങളെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽല് ഒരുപാട് നല്ല നല്ല സേവനങ്ങൾ കിട്ടുന്നുണ്ട് കാരണം അതായത് പാവപ്പെട്ടവർക്കും എല്ലാവർക്കും നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ചികിത്സ കിട്ടുന്നുണ്ട് ഇപ്പം നമുക്ക് മാനന്തവാടി ഹോസ്പിറ്റലിൽ നമുക്ക് ഏ അതായത് മെഡിക്കൽ കോളേജാക്കി മാറ്റി അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ അതായത് എല്ലാ സൗകര്യങ്ങളുമുണ്ട് അതായത് ഈ അഡ്മിറ്റ് ആകുന്നവർക്കാണെങ്കിൽ ഒരുപാട് ബെഡും അവിടെ കൂടെ നിൽക്കുന്നവർക്ക് ഫുഡ് രോഗിക്ക് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെന്നു വെച്ചാൽ നമുക്ക് മരുന്ന് ഫ്രീയാണ് ഡോക്ടർ നോക്കുന്നത് ഫ്രീയാണ് എല്ലാം നമുക്ക് ഫ്രീയാണ് അവിടെ കിട്ടുന്നതെല്ലാം നമുക്ക് ഫ്രീയാണ് പ്രൈവറ്റ് പോലെയല്ല ഹാ പിന്നെന്താന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്വദേശികളൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കും അതൊക്കെ ഫ്രീയാണ് അവർക്കും ഒന്നും പൈസയൊന്നും കൊടുക്കണ്ട അവർക്കും ചികിത്സയൊക്കെ ഫ്രീയാണ് പിന്നെ നമുക്ക് കൊറോണക്കാലത്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഉപകാരമായിരുന്നു ഇതിപ്പോൾ നല്ലൊരു ഹോസ്പിറ്റല് ഗവൺമെൻ്റ് ഹോസ്പിറ്റല് മാത്രമല്ല കൊറോണ ടൈമിൽ നമുക്ക് ഏ ഏകദേശം എല്ലാ ഹോസ്പിറ്റലിലും അത്യാവശ്യം നമുക്ക് കൊറോണകാർക്ക് ഒക്കെ ഭയങ്കര ഉപകാരമായിരുന്നു അവർക്ക് വേണ്ടി ഒരുപാട് നല്ലോണം അതായത് അവരുടെ ജീവിതം വരെ ത്യജിച്ചിട്ട് പിന്നെ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ഹെല്പ് ഫുൾ ആയിരുന്നു ആ ഹോസ്പിറ്റലുകൾ